ആ ഹലോ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ഒരു സാധനം വാങ്ങുകയുണ്ടായി അതായത് ഞാൻ ഓൺലൈനിലാണ് ഓർഡറ് ചെയ്തത് അങ്ങനെ ഓൺലൈനിൽ ഓർഡറ് ചെയ്തു അങ്ങനെ ഈ സാധനം വരുന്നു വരുന്നുണ്ടെന്നും പറഞ്ഞു എന്നെ ഡെലിവറി ബോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു ലൊക്കേഷൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്നതാണെല്ലോ ലൊക്കേഷനൊക്കെ കൊടുത്തു അങ്ങനെ ഞാൻ ആ ഡെലിവറി ബോയ് എന്നെ വിളിച്ച സമയത്തു ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടൗണിൽ നിൽക്കുകയാണ് ഒരാവശ്യത്തിന് വന്നതാണ് ഞാൻ ഇത്ര സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ വീട്ടിൽ വരുമെന്ന് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കേ ഞാൻ നിങ്ങൾ നിൽക്കുന്ന പരിസരത്തുണ്ട് അത് കാരണം അവിടെ വെയിറ്റ് ചെയ്യു ഒരു പത്തു മിനിറ്റ് വൈറ്റ് ചെയ്യു ഞാനിപ്പൊത്തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എങ്കിൽ ഇവിടെ കൊണ്ടു വന്നു തന്നോളൂ ഞാൻ അവിടന്ന് മേടിച്ചോളാംന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു അര മണിക്കൂറിൽ കൂടുതൽ അവിടെ നിന്നു അതി ആ സമയത്തെല്ലാം ഒരു അഞ്ചെട്ടു പ്രാവശ്യം ഈ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു പക്ഷേ ഒരു പ്രാവശ്യം പോലും കോളെടുക്കാൻ ഈ പുള്ളിക്കാരൻ തയ്യാറായിട്ടില്ല തിരിച്ചു വിളിക്കുകയും ചെയ്തില്ല കോൾ എടുക്കുകയും ചെയ്തില്ല അങ്ങനെ ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വീട്ടിലെത്തീന്ന് പറയാൻ വേണ്ടിയും പിന്നെയും വിളിച്ചു പിന്നെയും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കോള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാണ് ചെയ്തത് അല്ലെങ്കിൽ ആ കോളെടുത്തിട്ട് എന്താന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ തിരിച്ച് വിളിച്ചിട്ട് നിങ്ങൾ എവിടാണെന്നോ ഒന്നും ചോദിച്ചില്ല അതിനു ശേഷം കുറെ കഴിഞ്ഞപ്പോൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ടൗണിൽ നിൽക്കുകയാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടന്നിങ്ങു പോന്നു ഇപ്പോൾ വീട്ടിലെത്തി നിങ്ങൾ ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു നിങ്ങളെ എത്ര പ്രാവശ്യം വിളിച്ചു അപ്പം ഭയങ്കരമായിട്ട് എന്നോട് അയാൾ ചൂടാകാൻ തുടങ്ങി ദൂരെവിടെയോ നിന്നിട്ട് ഞാൻ ടൗണീ നിക്കുന്നേന്നും പറഞ്ഞ് ഓടി വന്നതാണ് ഓടി വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ലാന്നും പറഞ്ഞു ഭയങ്കര മോശമായ രീതീയിൽ എന്നോട് സംസാരിക്കുവൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓരോ ജോലീം കാര്യങ്ങളുമൊക്കെയുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ച് അവിടത്തേ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ശേഷം ഇവിടെ വന്ന് വീണ്ടും ഇവിടെ വന്ന് സാധനം തരാൻ വേണ്ടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ ക്യാഷ് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചെയ്ഞ്ചില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പെയ്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തേന്നും ചോദിച്ച് വീണ്ടും എന്നോട് ചൂടായി അപ്പോൾ ഞാൻ പറഞ്ഞു എൻറ്റേൽ ചേയ്ഞ്ചില്ലാത്തത് കൊണ്ടല്ലേ ചെയ്ഞ്ചില്ലാത്തത് കൊണ്ടല്ലേ തരാത്തേന്നു പറഞ്ഞു ഇവിടെ കിടന്ന് ഭയങ്കര ഷോ ഓഫായിരുന്നു ലാസ്റ്റാ പ്രൊഡക്റ്റ് വേണ്ടാന്ന് വരെ വെക്കണംന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ അടുത്ത വീട്ടീന്ന് ചെയ്ഞ്ച് മേടിച്ച് കൊണ്ടു വന്ന് കൊടുത്തു കൊടുത്തിട്ടും ആ മുഖത്തൊരു ഭാവത്തിൽ ഒരു മാറ്റവുമില്ല ഭയങ്കര മോശമായിട്ടുള്ള രീതിലായിരുന്നു ആ ഡെലിവറി ബോയ്ടെ പ്ര പ്രതികരണം അപ്പം നമ്മൾ ക്യാഷ് തന്നിട്ട് നിങ്ങളിപ്പം ഇത് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ലേ അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞങ്ങൾ കസ്റ്റമറ് അത് മേടിക്കുമ്പോൾ അതിൻറ്റെയൊരു മര്യാദ ഞങ്ങളോട് കാണിക്കണ്ടേ അല്ലേൽ ഈ ഡെലിവറി ചെയ്യാൻ വരുന്നവർ ഏത് രീതിയിലാണ് കസ്റ്റമറോട് പെരുമാറുന്നത് അതിൻറ്റെയൊരു ഫീഡ്ബാക്ക് നിങ്ങളെടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരനുഭവമുണ്ടായവർ പിന്നെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ അപ്പം നിങ്ങളെന്താന്നു വെച്ചാൽ അതിനൊരു തീരുമാനം എടുക്കണം അതിൻറ്റെയൊരു കാര്യം എന്നേം കൂടി അറിയിക്കണം ഇപ്പോരാൾടെ ജോലി നഷ്ടപ്പെടുത്താൻ വേണ്ടീട്ടല്ല ഞാനിത് പറയുന്നത് പക്ഷേ മേലിലാർക്കും പൈസ എല്ലാവരും ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് എല്ലാവരും ജോലി ചെയ്താണ് ജീവിക്കുന്നത് അപ്പം ഇത്രേം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടു വരുന്ന പൈസാ വെച്ച് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അവരിത്രേം റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടടുത്ത്